ഹലോ കെ കെ എസ് ഇ ബി ഓഫിസ് അല്ലേ

ആ ഞാൻ തായങ്കരിയിൽ നിന്ന് എൻ്റെ ഹൗസ് കണക്ഷൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ ലൈനില് മറ്റേ പവറ് വേരിയേഷൻ ആണ് ഇത് വരുന്നത് കാരണം കറക്ട് ആയിട്ടുള്ള പവറ് വരാത്തതു കാരണം നമ്മുടെ സാധങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം പവറ് കറക്ട് ആയിട്ട് ചെയ്യുന്നില്ല പിന്നെ ലോ വോൾട്ടേജിലാണ് മിക്കവാറും തായിങ്കരിയിലെ മൂലെയിലെ മൂലെ പാലത്തിനടുത്തുള്ള ഫോർമർ ആണ് ആ അതെ അതെ

മ്മ് ആ ആ ഇത് ആ ക്ലിയർ ആണ് അതൊന്ന് ശ്രദ്ധിക്കണം സാറെ ഞങ്ങളുടെ മാത്രം ഉള്ളു നമുക്കുള്ള നമ്മുടെ ലൈനീന്ന് വന്നിരിക്കുന്ന അടുത്തുള്ള വീടുകളിലും ഇതുപോലെത്തന്നെ പ്രശ്നമുണ്ട് കാരണം ലൈൻ കറക്ട് ആയിട്ട് ഇതിൽനിന്ന് വരുന്നില്ല പിന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നം വരുന്നുണ്ട് പിന്നെ ആ ആ ആ ആ ആ കാരണം അത് മ്മ് ആ അതിന്ന് ഉപേഷ വിചാരിക്കരുത് കാരണം നേ പെട്ടെന്ന് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇലക്ട്രിക് സാധനങ്ങൾക്കൊക്കെ അത് ഡാമേജുകൾ വരുന്നുണ്ട് ഈ ഇതിൻ്റെ വേരിയേഷൻ കാരണമേയ് വോൾട്ടേജ് ഇങ്ങനെ മാറിയും കയറിയും മാറിയും കയറിയും വരുന്നത് കാരണം പലതും പല മ്മ് മ്മ്

ആ ആ ആ അതാ കാരണം ഇത് നേരത്തെ ഇതുപോലെ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് എഴുതിയിടാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് തന്നത് ഈ കാര്യം നടന്നില്ല കാരണം വന്നതും ഇല്ല അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതു വീണ്ടും വിളിക്കേണ്ടി വന്നത് കാരണം ഇത് ആ ആ ആ ആ കാരണം ലൈൻമാൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അതിനകത്ത് വിളിച്ചിട്ട് പുള്ളി എടുത്തതും ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഓഫീസിലോട്ട് പിന്നെ രണ്ടാമതും വിളിച്ചത് കാരണം കംപ്ലെയിൻ്റ് വിളിച്ച് പറഞ്ഞ് പുള്ളിയുടെ നമ്പറിൽ വിളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും ഇങ്ങോട്ട് പിന്നെ തിരിച്ചൊന്നും പുള്ളിയുടെ റിയാക്ഷൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഓഫിസിലോട്ട് വീണ്ടും വിളിക്കേണ്ടി വന്നത് ആ ആ ആ ശരി ഓക്കെ സാർ എന്നാൽപിന്നെ താങ്ക് യു കുഴപ്പം ഇല്ല പിന്നെ ആളിനെ സമയത്ത് വിട്ടാൽമതി ഓക്കെ ശരി ശരി എന്നാൽ ഓക്കെ ആ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഓക്കെ